ആ ഞങ്ങളുടെ പൂന്തോട്ടത്തിൽ പരിപാലനത്തിനായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ട്യൂബ് ആണ് വെള്ളമൊഴിക്കാൻ ഉപയോഗിക്കുന്ന ട്യൂബ് അത് പൈപ്പിൽ കണക്റ്റ് ചെയ്തിട്ട് നമുക്ക് എത്ര ദൂരത്തേക്ക് വേണമെങ്കിലും വലിച്ച് നീട്ടി ചെടിയുടെ മൂട്ടിലേക്ക് നേരിട്ട് തന്നെ വെള്ളമൊഴിക്കാൻ സാധിക്കാറുണ്ട് പിന്നെ മൺവെട്ടിയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് മൺവെട്ടി ഉപയോഗിക്കുന്നത് ഇപ്പോൾ വലിയ കുഴിയെടുത്ത് നടേണ്ട ചെടിയാണെങ്കിൽ മൺവെട്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ നല്ല മൂർച്ചയുള്ള കുന്തനെ ഇരിക്കുന്ന മൺവെട്ടിയുണ്ട് അതും ഉപയോഗിക്കാറുണ്ട് അത് വലിയ കുഴികളെടുക്കാൻ വേണ്ടി സഹായിക്കാറുണ്ട് ആ മൺവെട്ടി അങ്ങനെ ഒരു മൂന്ന് മൂന്നിനം മൂന്ന് ഇനത്തിലുള്ള മൺവെട്ടികൾ ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ വളം ഇടുന്നതിന് വേണ്ടിയൊരു കോരി ഉപയോഗിക്കാറുണ്ട് ഞങ്ങൾ കോരിയെന്നാണ് പറയുന്നത് ഇങ്ങനെ സ്പൂൺ പോലെയിരിക്കും അതിനെ ഞങ്ങൾ അത് ഉപയോഗിക്കാറുണ്ട് പിന്നെ ചെറിയൊരു മൺവെട്ടിയും അതുപോലെ തന്നെ ഒരു രണ്ട് കമ്പി നീണ്ടിട്ടുള്ളൊരു ഒരു മൺവെട്ടിപ്പോലെ ഇരിക്കുന്ന ഒരു ചെറിയ ഒരു സാധനം അത് നമ്മൾ ഈ ചെറിയ ചെറിയ പുല്ലൊക്കെ പറിച്ച് കളയാൻവേണ്ടി അതിൻ്റെ ഇടയിലുള്ള കളയൊക്കെ വെട്ടിക്കളയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അത് അതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് പിന്നെ കത്രിക ഉപയോഗിക്കാറുണ്ട് അതായത് പൂത്ത് കഴിഞ്ഞിട്ടുള്ള റോസയെ മുറിക്കാനും പിന്നെ ചില ചെടികൾ നമ്മൾ ഒടിച്ച് ഒടിച്ച് കൊടുത്താലേ നല്ല ശിഖരം വരുള്ളൂ അപ്പോൾ അത് അതിന് വേണ്ടിയിട്ടും ഞങ്ങൾ ആ കത്രിക ഉപയോഗിക്കാറുണ്ട് പിന്നെ ഉപയോഗിക്കാറുള്ളത് നെറ്റ് വല ഒരു ഒരുതരം വലയുണ്ട് അതായത് ഈ പൂവ് മൊട്ടിട്ട് കഴിയുമ്പോഴേ ചിലപ്പോൾ ചില വണ്ടുകൾ വന്ന് അതിൽ കയറാറുണ്ട് അപ്പോൾ അത് കയറാതിരിക്കാൻ വേണ്ടി പൂ പൂക്കുന്നത് വരെ ഞങ്ങളൊരു നെറ്റ് അതിൻ്റെ മുകളിലേക്ക് ഇടാറുണ്ട് അപ്പോൾ അത് വണ്ട് വരുന്നത് തടയാൻ സഹായിക്കാറുണ്ട് അങ്ങനെ ആ വലയും ഉപയോഗിക്കാറുണ്ട്